പത്രത്തിലൂടെ പലപ്പോഴും കലാപരമായ വളർച്ചയ്ക്ക് നമുക്ക് സാഹചര്യങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും അതു ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിൽ സി ബി എ സി ഐ സി എസ് സി അല്ലെങ്കിൽ കേരളാ സിലബസ് ഈ പലതരത്തിലുള്ള സിലബസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള മത്സരങ്ങളും അത് ജില്ലാതലം സംസ്ഥാനതലം എന്നുള്ള രീതിയിൽ മത്സരം നടത്തി വിജയികളായി ഇരിക്കുന്നവർക്ക് അവർക്ക് അംഗീകാരവുമുണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ട് അവർക്ക് അതിനു മാർക്കും കൊടുക്കുന്ന ഒരു സാഹചര്യം നില നിൽക്കവെ ചില കുട്ടികൾക്ക് പക്ഷെ ഈ മേഖലകളിലൊന്നും എത്തിപ്പെടാൻ സാധിക്കാറില്ല ഇങ്ങനെയുള്ളവർക്ക് ഈ കലാ കലാപരമായ വളർച്ച നൽകുന്നതിനുവേണ്ടി പത്രങ്ങളിലൂടെ പത്രങ്ങൾ നേരിട്ടു തന്നെ നടത്തുന്ന മത്സരങ്ങൾ ജില്ലാതലത്തിലുണ്ട് സംസ്ഥാനതലത്തിലുണ്ട് മാതൃഭൂമി നടത്തുന്ന ഒരു മത്സരത്തിൽ എൻ്റെ മകൾ ഒരിക്കൽ പങ്കെടുക്കുകയും അതു സംസ്ഥാനതലത്തിൽ വരെ പോയി ഒന്നാം സമ്മാനം ഡാൻസിന് വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്തത് ഈ പത്രത്തിലൂടെ കലാപരമായ വളർച്ചയ്ക്ക് ഉള്ള ഒരു പരസ്യം കണ്ടിട്ടു പോയതു കൊണ്ടാണ് സാധിച്ചത് അപ്പം തീർച്ചയായിട്ടും പത്രങ്ങളിലൂടെ കലാ വളർച്ചയ്ക്ക് കൊടുക്കുന്നത് പക്ഷെ വലിയ ഒരു ന്യുസായിട്ടു വരാറില്ല പക്ഷെയത് വളരെ ശ്രദ്ധയോടുകൂടി ചെറിയൊരു കോളത്തിൽ വരുന്ന ആ ഒരു വാർത്ത നമ്മൾ കണ്ടെത്തി അതു വായിച്ചു മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വളർച്ച കിട്ടാൻ സാധിക്കുന്നുള്ളൂ അതേസമയം ചില ചില സംഘടനകൾ ബാലസഖ്യം പോലെയുള്ള സംഘടനകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള പല സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട് പത്രങ്ങൾ അതു നല്ലതു പോലെ ഉപയോഗിക്കുന്നുണ്ട് അതു മലയാള മനോരമ പത്രത്തിന് ഉണ്ട് മാതൃഭൂമി പത്രത്തിനുണ്ട് അവരെല്ലാം നല്ലതു പോലെയത് ഉപയോഗിക്കുന്നുണ്ട് അതാ സംഘടനയായിട്ട് ആ സംഘത്തിലെ ഒരംഗമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഞാനാദ്യം പറഞ്ഞത് അങ്ങനെ അംഗമാക്കിക്കൊണ്ടല്ല അല്ലാതെ ഏതൊരു വ്യക്തിക്കും പ്രായം മാത്രമേ അവർ പറയുകയുള്ളൂ പതിനാല് മുതൽ ഇരുപത് വയസ്സുവരെ അല്ലെങ്കിൽ എട്ടു മുതൽ പന്ത്രണ്ട് വയസ്സുവരെ അങ്ങനെയൊരു വയസ്സ് വെച്ച് കാറ്റഗറി ചെയ്തു കൊണ്ട് അവരേത് സ്കൂളിൽ പഠിക്കുന്നെന്നുള്ളത് വിഷയമേയല്ല അങ്ങനെ വെച്ച് ആ പത്രങ്ങൾ വഴിക്കു മത്സരങ്ങൾ നടത്താറുണ്ട് കലാപരമായ നല്ല നല്ല രീതിയിലുള്ള വളർച്ച ഗാനത്തിനായാലും ഡാൻസിനായാലും കുച്ചുപ്പുടി കേരളത്തിലുള്ള പല കലകൾക്കും പ്രാധാന്യം കൊടുത്തു കൊണ്ട് ഇങ്ങനെയുള്ള മത്സരങ്ങൾ പത്രങ്ങളിലൂടെ നടക്കുന്നുണ്ട്